മത്സ്യത്തൊഴിലാളികൾ എന്നു പറയുമ്പോൾ അവർക്ക് പ്രത്യേകം ജാതി അങ്ങനെയൊരു സംഘടന അങ്ങനെയൊന്നും ഇല്ല അവര് കൂട്ടത്തോടെ എല്ലാവരും ഒത്ത് ഉത്സാഹിച്ചൊരു ഇപ്പം ബോട്ടിൽ പോവുകയാണെങ്കിൽ അവരൊരു ഒരു എന്താ പറയുക ഒരു

കൂട്ടായ്മയായിട്ടാണ് പോണത് അതിൽ എല്ലാ ജാതിക്കാരും ഉണ്ടാകും അവർക്ക് പിന്നെ ഉത്സവം അങ്ങനെ വേറൊരു പറയുകയാണെങ്കിൽ അവര് സന്തോഷം വരുമ്പോഴാണ് അവർക്ക് ഉത്സവം പോലെ നടത്തുന്നത് അതായത് കുറേ മീനിനെ കിട്ടുമ്പോൾ അവര് ചാകര എന്നു പറയും കുറേയൊക്കെ ആ ബോട്ട് നിറച്ചും മീനിനെ കിട്ടി വരുമ്പോൾ അവര് ചാകര എന്നൊരു ഇതിലാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു സന്തോഷം എന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ അവർക്ക് കുറേ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെയുണ്ട് മത്സ്യത്തൊഴിലാളികൾ എന്ന രീതിയിൽ നമ്മൾ ഒരു അവരെ ചില ആൾക്കാര് അവര് അങ്ങനത്തെരു തൊഴിലാളികളാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും പക്ഷേ അവരൊക്കെ മനുഷ്യ മനുഷ്യന്മാരാണ് നല്ല രീതിയിലുള്ള ആൾക്കാരാണ് ഉള്ളത് അവര് നന്നായി അദ്ധ്വാനിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ നാട്ടിലോട്ടുള്ള മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുതരണതും ഒക്കെ നമ്മൾ ഉത്സാഹിച്ചിട്ടാണ്